കരയിൽ നിന്നും അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ നീന്തുമ്പോൾ നമ്മൾ സുരക്ഷയ്ക്ക് ആദ്യം തന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കുക അപ്പോൾ അതാവുമ്പോൾ പെട്ടന്ന് എന്താ പറയുക എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അനുഭവപ്പെട്ടാൽ ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് അതു നമുക്കൊരു സംരക്ഷണം ആയിരിക്കും പിന്നെ കറക്ട് എന്താ പറയുക നല്ല അത്ര നീന്താൻ അറിയുന്നൊരു ആളാണെങ്കിൽ മാത്രം കരയിൽ നിന്നും ദൂരെയുള്ള സ്ഥലത്തേക്ക് നീന്താനുള്ള ശ്രമം നടത്തുക പിന്നെ വഴുവഴുപ്പുള്ള പാറകൾ പായൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധയോടു കൂടിയും നമുക്കൊരു ബുദ്ധിമുട്ടിലാത്ത രീതിയിലും അപകടങ്ങൾ വരാത്ത രീതിയിലും നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം